മലയാളം ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും മാഹിയിലുമാണ് സംസാരിക്കുന്നത് മലയാളം ഒരു ദ്രാവിഡ ഭാഷയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷയിൽ ഒന്നാണ് മലയാള ഭാഷ കേരളത്തിലും ലക്ഷദ്വീപിലും പുറമെ മലേഷ്യ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് പഴയ തമിഴാണ് മലയാളഭാഷയുടെ ആദ്യ രൂപം എന്നു കരുതപ്പെടുന്നു മലയാളം സംസാരിക്കുന്നവരെ മലയാളികൾ എന്നാണ് പറയൽ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതന രേഖ രേഖ ചേര പെരുമാക്കന്മാരിൽ രാജശേഖര പെരുമാളിൻ്റെ കാലത്തുള്ളതാണ് മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് തമിഴും സംസ്കൃതവുമാണ് ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള ആളാണ് അത്കൊണ്ട് എനിക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ അറിയുകയുള്ളൂ പിന്നെ വേറെ ജില്ലകളിലൊക്കെ എത്തുമ്പോൾ വേറെ വേറെ പല സംസാരങ്ങളാണ് അത്കൊണ്ട് ഏറ്റവും കൂടുതൽ മലയാളമാണ് മലയാളത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ട്ടമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ ഉമ്മ എന്നുള്ള ആ ഒരു വാക്കാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കും